ഞങ്ങളുടെ ഗ്രാമത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ജാതിക്കാരുണ്ട് ഞങ്ങളുടെ പ്രധാന ആരാധനാ മൂർത്തി ഈ ഭാ ദേവിയാണ് ദേവിയെന്ന് പറയുമ്പോൾ നമ്മളീ സ്ത്രീകൾക്കൊക്കെ പീരിയഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ക്രിസ്ത്യാനികൾക്കും ചിലർക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ പൂജകൾ പൂ കൊണ്ടുള്ള പൂജകൾ ദീപാരാധന ദീപങ്ങൾ ആരാ കൊണ്ടുള്ള ദീപങ്ങൾ ഉഴിയുക അങ്ങനത്തെ ആചാര രീതികളൊക്കെ ഉള്ള പിന്നെ വർഷത്തിൽ ഒന്ന് ഉത്സവം ഉണ്ട് അപ്പം ദേവിക്ക് ശക്തി കൂടുന്ന സമയം ആണ് അപ്പം അന്നേരം കരയിലുള്ള എല്ലാവരൂടെ വരും പരിപാടികൾ നല്ല കലാപരിപാടികളൊക്കെ അമ്പലത്തിൽ വെക്കും അങ്ങനെ പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്കുണ്ട് പിന്നെ ഓരോ മത വിഭാഗക്കാർക്കും അവരുടേതായ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് പള്ളികളിൽ പെരുന്നാളുകൾ അങ്ങനെ ഒക്കെ ഓരോ രീതിയിൽ എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്